ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്നു പറയുന്നത് ചിക്കൻ ബിരിയാണിയാണ് നമ്മുടെ പാലക്കാടിൽ കിട്ടുന്ന പ്രത്യേകതരം ഒരു ബിരിയാണിയുണ്ട് റാവുത്തർ ബിരിയാണി എന്നു പറയും നല്ല ബിരിയാണിയാണ് നല്ല മുസ്ലിംസ് ഉണ്ടാക്കുന്ന ബിരിയാണികള്ക്ക് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ആണ് അപ്പോൾ അവർ ഈ ചിക്കനൊക്കെ നല്ലോണം വേവിച്ച് നല്ല രീതിയിൽ നല്ല എന്താ പറയുക നല്ല അപ്പോഴേ വായിൽ നിന്ന് വെള്ളം വരും അപ്പോൾ അവിടെ നിന്നൊക്കെ കഴിക്കാനാണ് ശരിക്കും പിന്നെ മലബാറിലെ ഫുഡ് കഴിക്കാന് ഇഷ്ടം ഒണ്ട് അവിടെ നിന്ന് നല്ല കുഴിമന്തീം നല്ല കുഴിമന്തിയാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടുക അത് കഴിക്കാന് ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടം പ്രിഫര് ചെയ്യുക ഫസ്റ്റ് പ്രിഫര് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബിരിയാണിയെ നോക്കുകയുള്ളൂ നല്ല ഫുഡ് ആണ് അവിടുത്തെ അതും റാവുത്തർ ബിരിയാണി കഴിക്കാനായിരിക്കും ചിക്കൻ ഒക്കെ ഇങ്ങനെ ചിക്കന് അതിന്റെ അവർ തരുന്ന ഒരു ഗ്രേവി ഉണ്ട് സ്പെഷ്യല് ഗ്രേവി ആ ഗ്രേവിയാണ് അതിലെ ഏറ്റവും ഹൈലൈറ്റ് എന്നു പറയുന്നത് അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും എന്താ പറയുക ഇഷ്ടമുള്ള ഫുഡ് എന്നു പറയുന്നത് പാലക്കാടു നിന്ന് കഴിക്കാനാണ് പുറത്തൊന്നും പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഒന്നും ഫുഡ് ഒക്കെ ഭയങ്കര മോശമാണ് നമ്മുടെ അവിടുത്തെ ഫുഡ് തന്നെയാണ് ഏറ്റവും നല്ല ഫുഡ് എന്നു പറയുന്നത് അതു തന്നെയാണ് ഏറ്റവും കഴിക്കാന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതു തന്നെയാണ്